സൈക്കളോടിക്കുമ്പോഴ് ഞങ്ങള് കുടുതലായിട്ടും നല്ല രീതിയിലുള്ള സുരക്ഷാകാര്യങ്ങളൊക്കെ നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിനെന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ദൂര യാത്ര പോകാൻ വേണ്ടിയിട്ട് സൈക്കിളിംഗിന് പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ സൈക്കിളിന് മെയിനായിട്ട് നോക്കേണ്ടത് ബ്രേയ്ക്ക് ഉണ്ടോ എന്നാണ് ബ്രേയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ പറ്റുകയുള്ളു എന്തെങ്കിലും ഒരു അപകട സാധ്യത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടന്ന് ബ്രേയ്ക്ക് കാര്യങ്ങളൊക്കെ പിടിക്കാൻ പറ്റുകയുള്ളു നല്ല രീതിയിലുള്ള ബ്രേയ്ക്ക് കാര്യങ്ങളൊക്കെ ആദ്യമേ ചെക്ക് ചെയ്യണം പിന്നെ വീലിൻ്റെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ വീലിൻ്റെ ഒരു ബോൾ പോലത്തെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് പോയിക്കഴിഞ്ഞാല് വീൽ ജാമാവാനും പിന്നെ നമ്മള് വഴിക്ക് കിടക്കാനും ചിലപ്പോൾ നമ്മള് വീഴാനും വരെ അതായത് വീൽ സ്റ്റെക്കാവാൻ വരെ ചാൻസ് കുടുതലാണ് അപ്പോൾ വീലിൻ്റെ അവിടെ എന്തെങ്കിലും ജാമ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ചെയിനൊക്കെ പെർഫെക്ഷനാണോന്ന് നോക്കണം നമ്മളിപ്പോൾ കയറ്റത്തൊക്കെ നമ്മള് എണീറ്റ്നിന്ന് ചിലപ്പോൾ ചവിട്ടുന്ന ഒരു സ്ഥിതി ഒക്കെ ഉണ്ടാകും അപ്പോൾ എണീറ്റ് നിന്ന് ചവിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ചെയിൻ പൊട്ടാനും ചെയിൻ ഊരിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തില്ലെങ്കില് നമുക്ക് പല രീതിയിലുള്ള എന്തേലും അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളയാണ് പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് മെയിനായിട്ട് ഹെൽമെറ്റ് ഇപ്പോൾ നമ്മള് ഏതു വണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും അതെ ബൈക്കാണെങ്കിലും ശരി സൈക്കളാണെങ്കിലും ശരി നമ്മള് ഹെൽമെറ്റ് എപ്പൊഴും യൂസ് ചെയ്യുക അതൊക്കെ മെയിൻ ആയിട്ട് നോക്കാറുള്ള കാര്യമാണ്